എൻ്റെ ഒന്നാമത്തെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആക പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കെറ്റിലാണ് കെറ്റിലിൻ്റെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഇപ്പം പറയണ്ട കാര്യമൊന്നുമില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം എന്താ പറയുക എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നാൽ നമുക്ക് നല്ല ഹാൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഇപ്പം ചായയും വെള്ളവും ഒക്കെ തിളപ്പിച്ച് ഇങ്ങനെ കുടിയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കെറ്റിലെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹാന്ഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കെറ്റിലെന്ന് പറയുന്നത് എന്താ പറയുക അതിൻ്റെ പോസിറ്റീവ് വെച്ചാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇതായിരിയ്ക്കും എന്ന് വെച്ചാൽ അടിപൊളി ആയിട്ട് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആയി ഈ കെറ്റിലെന്ന് പറയുന്നത് പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഹാൻഡ് ചെയ്യാൻ പറ്റുന്ന എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം തിളപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കെറ്റിലെന്ന് പറയുന്നത് അതിന് ചോദിച്ചാൽ എനിയ്ക്കു നല്ല അഭിപ്രായം ആണുള്ളത് അത്യാവശ്യം നമുക്ക് വേഗമെന്ന് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി വേഗമൊന്ന് വെള്ളം തിളപ്പിയ്ക്കാൻ ഒക്കെ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്യാൻ നല്ല ടൈം എടുക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് എല്ലാം നമുക്ക് റെഡി ആകുമെന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ പ്രോഡക്റ്റ് കെറ്റിലിനെ കുറിച്ച് എനിയ്ക്ക് പറയാനുള്ള പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്